എപ്പോഴും എൻ്റെ യാത്ര അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര സുരക്ഷിതവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്ര ചെയ്യാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗം കാർ തന്നെയാണ് സ്വന്തം കാർ തന്നെയുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് സ്വ സ്വന്തം സമയത്ത് എത്താം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്താം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്ത് പോകാം എവിടെ വേണമെങ്കിലും നിർത്താം വിശ്രമിക്കാം യാത്ര ഇച്ചിരി പുഷ് ചെയ്യണമെന്നു തോന്നിയാൽ വിശ്രമിക്കാം അതൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഇപ്പഴും ഞാൻ യാത്ര ചെയ്യുന്നത് അതായത് ദീർഘദൂരം ആണെങ്കിലും അല്ലെങ്കിൽ അടുത്താണെങ്കിലും ഞാൻ എപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കാർ തന്നെയാണ് അത് കുടുംബസമേതം ആണെങ്കിലും എങ്ങനെയാണെങ്കിലും കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്വന്തം കാറില് യാത്ര ചെയ്യാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്തെങ്കിലും ക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമെന്തെങ്കിലുമുണ്ടെങ്കിലോ ഇപ്പോൾ നമുക്ക് കാർ നിർത്താം നമ്മുടെ ഇഷ്ടത്തിന് നിർത്താം നമ്മുടെ ഇഷ്ടത്തിന് വണ്ടിയെടുത്ത് പോകാം സുരക്ഷിതമായി ഓടിച്ചു പോവാം കാരണം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാകുമല്ലോ ആ ഒരു ധൈര്യം തന്നെയാണ് സ്വന്തം കാർ എടുത്തു പോകുമ്പോൾ പിന്നെ അത് സുഖായിട്ട് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും കുടുംബത്തോടെ യാത്ര ചെയ്യുകയാണെങ്കിൽ സുഖം തന്നെയാണ് സുഖം തന്നെയാണ് യാത്ര ചെയ്യുന്നത് കാറിൽ കാരണം എല്ലാവരും ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യാം അത് യാത്ര ക്ഷീണമോ യാത്രാ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല